എഴുപത് നാൽപ്പത്തി അഞ്ച് നൂറ്റി മുപ്പത്തി ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റിത്തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തേഴ് നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട്